ഞാൻ എളംകുളത്തൂന്നായിരുന്നേ ഇത് സുലഭ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നോ ഞങ്ങൾക്കപ്പം കുറച്ചു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടീട്ടായിരുന്നേ അതായത് പഴം പഴം ക് എങ്ങനെയാണ് കിട്ടുക ഓഫർ എത്രാ റേറ്റൊക്കെ

അപ്പം അത് വെറൈറ്റിസ് ഉണ്ടോ എന്തൊക്കെ വെറൈറ്റിസ് ഉണ്ട്

ആ ഓക്കേ ചക്കയോ ചക്ക അപ്പം എങ്ങനാണ് ചക്ക അപ്പം ബൾക്ക് ആയിട്ട് ആണോ ഓക്കേ മാങ്ങയുണ്ടോ മാങ്ങ അപ്പം പഴുത്തതിനാണോ റേറ്റ് കൂടുതൽ അതോ പച്ചക്കായിരുന്നോ ആണോ ഓ ഓക്കേ അതപ്പം എത്രയായിരിക്കും ഓ ഓക്കേ അപ്പം പപ്പായയോ ഓക്കേ ഇത് എല്ലാം ഇത്രയും പഴ സാധനങ്ങളും നമ്മളൊന്നിച്ച് കോംബോ ആയിട്ട് മേടിക്കുവാണെങ്കിൽ ഓഫറൊക്കെ കിട്ടുമോ

ആ ആണോ ഓക്കേ അതപ്പം എങ്ങനാണ് ഡെലിവറി അവൈലബിൾ ആണോ അപ്പോൾ അതിനെങ്ങനാണ് ക്യാഷ് തരുക ആ ഓക്കേ അപ്പം പഴം ചക്ക മാങ്ങ പപ്പായ ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടീട്ടായിരുന്നു അപ്പം ചക്ക എമൗണ്ട് അപ്പം ഗൂഗിൾ പേ ചെയ്തേക്കാവേ ആ ഓക്കേ താങ്ക് യൂ